സ്റ്റേജിലൊക്കെ വെച്ച് ഞങ്ങൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേ സ്റ്റേജിൽ കയറുന്നതിന് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പം പലപ്പോഴും പല പ്രാവശ്യവും അത് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്കങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു പന്ത്രണ്ട് വയസ്സുള്ളൊരു സമയത്താണ് എനിക്ക് കൂടുതലൊരു ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ദേവാലയത്തിൽ പള്ളീടെ കേന്ദ്രീകരിച്ചൊരു മത്സരത്തിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ രൂപത മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ചൊരു പത്ത് നൂറും പേരോളം ഉള്ളൊരു മത്സരമായിരുന്നു അത് ആളുകൾ കൂടുതൽ വലിയൊരു സ്റ്റേജ് അങ്ങനെ അതൊക്കെ കയറാൻ ഞങ്ങളുടെ ഒരു കവിതാ പാരായണത്തിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അതിൽ പങ്കെടുത്തപ്പോൾ അതിൽ ഏതായാലും എനിക്ക് ഞാൻ ധൈര്യപ്പെട്ട് കയറി അതിൽ എനിക്ക് സമ്മാനം വാങ്ങിക്കാനായിട്ട് സാധിച്ചു പക്ഷേ അത് അവിടെ വെച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കരമായൊരു ഭീതി ഉണ്ടായിയുരുന്നു പക്ഷേ അ അ വലിയൊരു സ്റ്റേജ് ആയതുകൊണ്ടാണ് പക്ഷേ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് അതിനകത്ത് റിസൾട്ട് വന്നപ്പോൾ നല്ല ഒരു

അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു സാഹചര്യത്തെ മറികടന്ന് ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ദ സ്കൂളുകളിലായാലും യുവജനോത്സവത്തിന് ഇതൊക്കെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പം ഇതിലും ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ സംബന്ധിച്ച സമയങ്ങളിൽ ഇങ്ങനെ ഒരു സ്റ്റേജിലേ കയറാനൊരു മടിയും പേടിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നീട് പിന്നീട് മറ്റുള്ള അധ്യാപകരുടെ സപ്പോർട്ടും മറ്റുള്ളതൊക്കെ അതൊക്കെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൊക്കെ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ ഞാനത് എനിക്കതിനകത്ത് മറികടന്ന ഒരു അനുഭവം ഉണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു നല്ല അനുഭവമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരോന്നും ഇങ്ങനെ ഓർത്തോർത്ത് ചിന്തിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് കിട്ടിയത് നമുക്ക് ചില നേട്ടങ്ങളും ആണ് അതിനകത്തൊക്കെ അന്ന് മാറാതെ ധൈര്യമായിട്ട് പങ്കെടുത്തത് കൊണ്ട് പിന്നീടുള്ള അവസരങ്ങളിൽ അത് ഉപയോഗപ്രദമായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനും അത് നമുക്ക് മറികടന്ന് അതിൽ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്